ഞങ്ങള്ക്ക് ടാപ്പ് വെള്ളം ലഭിക്കാറില്ല ഞങ്ങളുടെ അവിടെ പാട ശേഖരങ്ങളില്നിന്നും അല്ലെങ്കില് ഇവിടുന്നല്ലേ വിഷധിബ്ധമായ വളം വിഷം പ്രയോഗിച്ച് വൈക്കോല് ചീഞ്ഞളഞ്ഞ വെള്ളമാണ് തോട് പൊതു ജലശായത്തിലേക്ക് തള്ളിവിടുന്നത് അത് മുഖാന്തിരം അതു മൂലം ഞങ്ങള്ക്ക് ശുദ്ധജലം വലിയൊരു രൂക്ഷമായ പ്രശ്നമാണ് ടാപ്പിലും വെള്ളമില്ല പിന്നെ മഴ പെയ്യുമ്പോള് മാത്രം മഴവെള്ളമാണ് ഞങ്ങള്ക്ക് ഉള്ളത് അല്ലെങ്കില് സര്ക്കാര് പഞ്ചായത്തുകള് കേന്ദ്രീകരിച്ച് വള്ളത്തെ കൊണ്ടുത്തരണം ടാപ്പുവെള്ളം ലഭിച്ചാല് ഞങ്ങക്ക് കുറച്ചുങ്കുടെ നല്ലതായിരുന്നു നമുക്ക് ടാപ്പുവെള്ളം ഇവിടെ ടാപ്പില്ക്കൂടെ വെള്ളം ലഭിക്കാത്ത സാഹചര്യാണ് പമ്പ് കമ്പ്ലേന്റായാല് പെട്ടെന്ന് വെള്ളം എത്താത്ത സാഹചര്യമുണ്ട് അത് പിന്നെ ആഴ്ചകളും മാസങ്ങളും എടുക്കും അപ്പോള് അതുകൊണ്ട് ശുദ്ധജലം ഞങ്ങള് ഏറ്റവും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോള് ടാപ്പില്ക്കൂടെ വെള്ളം ലഭിച്ചാല് അതേ ഉള്ളൂ ഞങ്ങള്ക്കിപ്പോള് എളുപ്പത്തിൽ കിട്ടാന്നുള്ള ഒരു മാര്ഗം പക്ഷേ അത് ഞങ്ങള്ക്ക് കാര്യമായി ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലവില് ഉള്ളത് ടാപ്പ് വെള്ളം ലഭിക്കണമെന്നുണ്ടെങ്കില് ലീക്കില്ലാത്ത പൈപ്പില്ക്കൂടെ ലീക്ക് കമ്പ്ലീറ്റെയ്ത് പൈപ്പ് വൃത്തിയാക്കി വെള്ളം എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാല് മാത്രമേ ഉള്ളു ഞങ്ങള്ക്ക് ശുദ്ധമായ ജലം കിട്ടാന് സാധ്യതയുള്ളു അത് ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് പിന്നീട് അത് പരിഹരിച്ച് തരുന്നാതിനാവശ്യമായ നടപടികള് ബന്ധപ്പെട്ട അധികാരി ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല അതാണ് ഞങ്ങള്ക്ക് ടാപ്പുവെള്ളം ലഭിക്കാത്ത സാഹചര്യം അത് ലഭിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ച് തരുന്നില്ലെന്നുള്ളതാണ് ഞങ്ങളിപ്പോള് മലിന ജലം ഉപയോഗിക്കണ്ട സാഹചര്യമാണ് ഞങ്ങള്ക്കുള്ളത് കുടിക്കാന് പോലും ഞങ്ങള് വില കൊടുത്ത് മേടിക്കേണ്ട സാഹചര്യം അപ്പോള് അതെല്ലാം ഒഴിവാക്കി എടുക്കാന് പറ്റും ഞങ്ങള്ക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാന് പറ്റും ടാപ്പിലൂടെ വെള്ളം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാല് അത് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഞങ്ങളുടെ പ്രദേശത്തുള്ളത് അതുകൊണ്ട് വെള്ളം ടാപ്പ് വെള്ളമേ ഉള്ളു നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങള്ക്കും ഉപയോഗിക്കാന് പറ്റുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് അത് ലഭിക്കും അത് ലഭിച്ചാല് ഞങ്ങളുടെ വലിയ വെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന് കഴിയും